ആശുപത്രീ എന്നു പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഞങ്ങൾ പോകുന്നത് എടത്വ ജൂബിലിയിൽ ആശുപത്രിയിൽ പോകും ഗവൺമെൻറ്റാശുപത്രിയിൽ പോകും പച്ച ലൂർദ് ഹോസ്പിറ്റലിൽ പോകും അവിടെ പോകാനായിട്ട് സൗകര്യമില്ലെങ്കിൽ ഞങ്ങൾ ചെത്തിപ്പുഴ ആശുപത്രിയിൽ പിന്നെ നമ്മുടെ ഉദയഗിരി ആശുപത്രിയിൽ സുരേഷ് ഹോമിൽ ഇത്രയും സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നത് പിന്നെ വെള്ളം പൊങ്ങിയാലും അല്ലാതെ പോകുക പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ വെള്ളം പൊങ്ങിയാൽ ഞങ്ങൾ നീന്തി വേണം അങ്ങ് ഏ സി റോഡ് വരെ പോകാനായിട്ട് ഏ സീ റോഡിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിൽ കയറി പിന്നെ ചങ്ങനാശ്ശേരി പോയി ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ പിടിച്ചു വേണം പോകാൻ ഓട്ടോ കൂലി ഒക്കെ ഭയങ്കര കൂടുതലാണ് പിന്നെ പിന്നെ അവിടെ നിന്ന് പിന്നെ അവിടെ ചെന്നാലും പിന്നെ ഒരു ഇതാശുപത്രിയിലൊക്കെ ഒരു പനി ആയിട്ട് ചെന്നാലും നല്ല ചാർജ്ജാണ് പിന്നെ ഉടനെ രക്തം പരിശോധിച്ചു പിന്നെ പിന്നെ പ്രഷർ നോക്കി ഷുഗർ നോക്കി ഇതെല്ലാം കൂടെയായിട്ട് വരുമ്പോഴത്തേക്കും നല്ല ഒരു തുക നമുക്ക് വരും പിന്നെ അതു പിന്നെ അതു കഴിയുമ്പം പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം ചെല്ലാൻ പറയും പിന്നെയും ഇതുപോലൊക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പിന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ വെള്ളപ്പൊക്കവും ഇതും വന്നു കഴിഞ്ഞാൽ പിന്നെ ആശുപത്രിയിൽ പോക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ എടത്വ ഗവർമെൻറ്റാശുപത്രിയിൽ ചെന്നാൽ പിന്നെ മരുന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ കിട്ടും പിന്നേ പ്രഷറും ഷുഗറും അതൊക്കെ അവിടെ നോക്കും പിന്നെ അതു കഴിഞ്ഞ് പിന്നെ ജൂബിലി ആശുപത്രിയിൽ ആശുപത്രി പോയാൽ അവിടെ ഇതുപോലെ തന്നെ ഭയങ്കര പൈസയാണ് ഒന്നു ഒന്നു ഒരു പ്രാവശ്യം ആശുത്രിയിൽ പോയിട്ട് വരുമ്പം പത്തും ആയിരത്തി അഞ്ഞൂറും രൂപയൊക്കെയാണെ ആകുന്നത് പിന്നെ അതു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അതു കുറവിലെങ്കിൽ പിന്നെ അവിടെ നിന്ന് പിന്നെ വണ്ടാനത്ത് പോകും വണ്ടാനത്ത് പോയാൽ അതിനേക്കാൾ പ്രയാസമാണ് വണ്ടാനത്ത് പോയി പിന്നെ അവിടെ പോയി ക്യൂ നിന്ന് രോഗിയായിട്ട് ചെല്ലുന്നവർ പിന്നെ അവിടെ കിടക്കേണ്ടി വരും അതു കണക്ക് വേണം ക്യൂ നിൽക്കാനായിട്ട് ക്യൂ നിന്നു കഴിഞ്ഞ് അവിടെ നിന്ന് മരുന്നൊക്കെ കിട്ടി വരുമ്പോഴത്തേക്കും കുറേ സമയമാകും അവിടെ പോയി ക്യൂ നിന്ന് ഓ പി ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് ഡോക്ടർമാരെയൊക്കെ കണ്ട് വരുമ്പോഴത്തേക്കും രാവിലെ എട്ടു മണിക്ക് പോയാൽ ഒരു വൈകിയിട്ട് ഉച്ചക്കൊരു മൂന്ന് മണി ആകുമ്പോഴേ മൂന്ന് മണി ഒക്കെ കഴിയുമ്പോഴേ ഞങ്ങൾക്ക് തിരിച്ചു വരാനൊക്കത്തുള്ളു പിന്നെ അവിടെ നിന്ന് കുറച്ചൊക്കെ മരുന്നു തരും പിന്നെ പിന്നെ കുറച്ചൊക്കെ കുറിച്ചു തരും പുറത്തു നിന്നു മേടിക്കാനായിട്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പിന്നെ വണ്ടി പിടിച്ചു വേണം വരാനായിട്ട് സമയത്തിന് ബസ്സില്ല ബസ് കാണത്തില്ല അതുകൊണ്ട് പിന്നെ ഓട്ടോ പിടിച്ചാണ് വരേണ്ടത് ഓട്ടോ പിടിച്ച് വരുമ്പം നമുക്ക് ആലപ്പുഴയിൽ നിന്നൊക്കെ വരുമ്പം തന്നെ നമുക്ക് ഒരു പത്ത് എഴുന്നൂറ് എഴുന്നൂറ്റൻപത് രൂപയോളം നമുക്ക് ആശുപത്രിയിൽ ഇത് ഓട്ടോ കൂലി ആകും പിന്നെ പിന്നെ അവിടെ നിന്ന് പിന്നെ പിന്നെ കുറവിലെങ്കിൽ വീണ്ടും നമ്മൾ പോകണം പിന്നെ അവിടെ ചെന്ന് ഓരോ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഓരോ ടെസ്റ്റുകളൊക്കെ ചെയ്ത് പിന്നെ കുറച്ചൊക്കെ അവർ ആ മെഡിക്കൽ കോളേജാകുമ്പം കുറച്ചൊക്കെ നമുക്ക് എ പി എല്ലാ ബി പി എല്ലാമാണെങ്കിൽ നമുക്ക് അധികം പൈസയൊന്നും കൊടുക്കേണ്ട എ പി എല്ലാമാണെ നമ്മളെല്ലാറ്റിലും പൈസ കൊടുക്കുക ഇങ്ങേയറ്റം ഓ പി ടിക്കറ്റിൻ്റെ ഇതിനു വരെ നമ്മൾ പൈസ കൊടുക്കണം പിന്നെ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും